നമ്മുടെ നാട്ടിൽ ബൈക്കിൽ പെട്രോള് തീർന്ന് വഴിയിലാകാത്ത ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്രോള് തീ പിടിച്ച വില കൂടി ആയി കഴിഞ്ഞാൽ തീർന്നു അതുപോലെ തന്നെ ഏറെ നേരം പെട്രോൾ ഇല്ലാതിരുന്നാൽ നമ്മുടെ ബൈക്കിലൊക്കെ ബൈക്കിലൊക്കെ ആണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ആകാൻ കുറച്ച് പാടാണ് പിന്നെ നമുക്ക് ഇത് ഹാനികരമാണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അല്ല ഹാനികരമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതിനെ മോശമാക്കുന്നത് നമുക്ക് ഈ പെട്രോള് കിട്ടുന്നത് എവിടുന്നാണ് ഭൂമിയിൽ നിന്നാണ് അപ്പം ഈ ഭൂമിയിൽ നിന്ന് അത് ഖനനം ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പെട്രോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം എല്ലാവരും എന്താണ് ഈ പെട്രോളിൽ അടിച്ചിട്ടുള്ള വാഹനങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് ഇപ്പം ഇലക്ട്രോണിക്സ് വണ്ടി അങ്ങനൊക്കെ ഉള്ളതിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കൂടി വരുകയാണ് പെട്രോള് അടിച്ചിട്ടുള്ള വണ്ടികൾ കുറഞ്ഞു വരുകയാണ് ഇപ്പോൾ കൂടുതലും ചാർജിങ് ചെയ്ത് ഓട്ടിക്കുന്ന വണ്ടികൾ എല്ലാം പെരുകി കൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഈ ഇപ്പോഴും നേരത്തേയും അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നവരുണ്ട് ഇപ്പോഴും അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നവരുണ്ട് അപ്പം അവരെയൊക്കെ സംബന്ധിച്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് എപ്പോഴും സാധാരണക്കാർക്ക് ഈ വില കൂടുന്ന ഈ പെട്രോളിന് വില കൂടുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഇത് കാര്യം തന്നെയാണ് ഇപ്പം ഈ അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നവർ അന്നും ഇന്നും അങ്ങനെ തന്നെ പോയി കൊണ്ടിരിക്കുന്നവർക്ക് അപ്പം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ പെട്രോളിൻ്റെ വിലവർദ്ധനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് ബൈക്ക് ബൈക്ക് സ്കൂട്ടി അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ കഷ്ടം തന്നെയായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പരിസ്ഥിതിക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെട്രോള് വഴിയിലോ ഒക്കെ ആയി കഴിഞ്ഞാൽ അതായത് അതിലൊരു കുപ്പിയിൽ വാങ്ങിക്കുകയാണത് അഥവാ വെള്ളത്തിൻ്റെ കൂടെ കലർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും പെട്രോളും ഇത് ഇന്നത് പെട്രോൾ ആണിത് വെള്ളം ആണെന്നുള്ളത് നമുക്ക് തരം തിരിച്ച് അറിയാൻ പറ്റും അതുപോലെ തന്നെ പെട്രോളിന് പ്രത്യേക ഒരു മണമാണ് അതുപോലെ തന്നെ ഇത് പെട്രോൾ എവിടെയെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തീ കത്തി പിടിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ അത് ദോഷമായിട്ട് അതായത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല പെട്രോളിനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും പെട്രോളിൽ നിന്നും ഉള്ള വണ്ടികളിലെ മാറ്റം വരുത്തി കൂടുതലായിട്ടും ഇലക്ട്രോണിക്സ് പോലെ ഉള്ള വണ്ടികൾ ഇപ്പം പാവപ്പെട്ടവനും ലോൺ എടുത്തിട്ടായാലും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇ എം ഐക്ക് ആയാലും അങ്ങനുള്ള വണ്ടികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം പെട്രോളിൻ്റെ വർധനവ് അവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒന്നാമതെ സാധനങ്ങൾക്ക് എല്ലാം വിലയാണ് അതിൻ്റെ കൂടെ ഈ ഇന്ധന വിലകൾ കൂടെ കൂടുകയാണെങ്കിൽ അവരെ കൊണ്ട് ഒട്ടും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ്